സ്കൂള് കൗണ്സിലര് സാറല്ലേ എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു അപ്പോള് ആധാർ കാർഡിന് അപേക്ഷിക്കേണ്ടത് ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോള് അതിന് കാരണം എന്താണെന്നുവച്ചാല് ബാങ്ക് അക്കൗണ്ടിനും റേഷൻ കാർഡിന് ആവശ്യങ്ങൾക്കും എല്ലാം ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു അപ്പോള് ഇതിന് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അത് അതിന് എന്തെല്ലാം ഡോക്കുമെന്സാണ് നമ്മൾ ഹാജരാക്കേണ്ടത് അപ്പോള് നമ്മള് നേരിട്ട് ഹാജരാകേണ്ടത് ഏത് സ്ഥാപനത്തിലാണ് ഏത് ഓഫീസിലാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഒന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ട് അപ്പോള് സ്കൂള് കൗണ്സിലറുമായിട്ട് ബന്ധപ്പെട്ടാല് ഇതിന്റെ സഹായം ലഭിക്കുമെന്ന് പറഞ്ഞു അതിനാലാണ് ഞാന് സാറിനെ ബന്ധപ്പെട്ടത് സാര് സഹായിക്കണം